ഇപ്പോൾ എൻ്റെ നാട്ടിൽ എനിക്കറിയാവുന്ന ഒരു വിപണീന്നൊക്കെ പറയുമ്പോൾ മാളുകൾ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ സാധനങ്ങൾ വാങ്ങാനും അല്ലാത്ത സാധനങ്ങളൊക്കെ കൊടുക്കുന്നേനായാലും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നാൽ ഇന്നിപ്പോൾ ഇപ്പോഴത്തെക്കാലത്ത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പച്ചക്കറികൾക്കും പലവ്യഞ്ജനങ്ങൾക്കൊക്കെ പെട്ടെന്നാണ് എന്താ പറയാ വിലവർദ്ധനവൊക്കെ ഉണ്ടായത് കാരണം തക്കാളിക്കൊക്കെ നൂറ്റിഇരുപയിരൂപവരെയൊക്കെ വന്നിരുന്നു പിന്നെ അതിന് മുമ്പ് കുറച്ചുനാൾ മുമ്പ് സവാളയ്ക്കതുപോലെതന്നെ ഭയങ്കര എന്താ പറയാ വില കൂടുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഓരോ സാധനങ്ങളും ലഭിക്കാണ്ട് വരുമ്പോൾ അതിൻ്റെ വില ഭയങ്കരമായിട്ട് ഉയർന്നുവരികയും പെട്ടെന്നന്നെ നമുക്ക് സാധാരണക്കാർക്കത് താങ്ങാൻ പറ്റാതാവുകയൊക്കെ ചെയ്തൊരു സമയമുണ്ടായിരുന്നു പിന്നെയിപ്പോൾ ഓൺലൈൻ വഴിയാവുമ്പോൾ സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ എന്താ പറയാ വില നമുക്ക് മനസ്സിലാക്കാനോ അതിൻ്റെ ഓഫറും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി നമുക്കത് ഓർഡറ് ചെയ്യാനും അത് വാങ്ങിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ കൊണ്ടൊള്ള ദോഷം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചെറിയ വിലയ്ക്ക് സാധനം കിട്ടുമ്പോൾ എല്ലാവരും അത് വാങ്ങുകയും പിന്നീട് അതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കുവാണ് സാധാരണ ചെയ്യാറ് കാരണം ഇപ്പം ഓൺലൈൻ വഴി ഇപ്പം ഡ്രസ്സ് തന്നെ എടുക്കുകയാണെങ്കിത്തന്നെ ചെറിയ പൈസയ്ക്കൊക്കെ ഡ്രസ്സ് കിട്ടുന്ന കാണുമ്പം നമ്മളാദ്യം അത് വാങ്ങുകയും പിന്നീടത് ഡെലിവറി ആയിക്കഴിഞ്ഞേനു ശേഷമായിരിക്കും നമുക്കതിൻ്റെ അബദ്ധം മനസ്സിലാവുക കാരണം അത് ഡെലിവറി ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ക്വളിറ്റിയിലുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവും കാരണം നമുക്ക് പൈസ കൊടുത്തതിനുള്ളൊരു എന്താ പറയാ ഉപയോഗോന്നും അതിന് അതിനുള്ളൊരു ഗുണോന്നും ആ സാധനത്തിന്ല ചിലപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇതൊക്കെ ഇപ്പോൾ വരുന്നൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്